ജൈവ വാതക പ്ലാൻറ്റുകൾ സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം നേട്ടമുണ്ട് നേട്ടമെന്ന് പറഞ്ഞാൽ പിന്നെ കുക്കിങ്ങിനാണ് സാധാരണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കുക്കിങ്ങിന് പാചകത്തിന് ഉപയോഗിക്കുന്നതൊടൊപ്പം തന്നെ അതിന് വെളിച്ചത്തിനും വേണ്ടി ഉപയോഗിക്കാറുണ്ട് വെളിച്ചം കാണാനും ഉപയോഗിക്കുന്നു ഫാൻ പ്രവർത്തിപ്പിക്കാനും മോട്ടർ പ്രവർത്തിപ്പിക്കാനും ബയോഗ്യാസ് പ്ലാൻറ്റുകൾ ജൈവ വാതക പ്ലാൻറ്റുകൾ ഉപയോഗിക്കാറുണ്ട് കൂടുതലും ജൈവ വാതക പ്ലാൻറ്റുകൾ ബയോഗ്യാസ് പ്ലാൻറ്റുകൾ ചാണകത്തിൽ നിന്നാണ് ഉപയോഗിക്കുന്നത് അപ്പോള് അതിൻ്റെ വേസ്റ്റായ സാധനങ്ങൾ അലിയുന്ന ചീയ്യുന്ന ചീയ്യുന്ന അലിയുന്ന എല്ലാ സാധനങ്ങളും ബയോഗ്യാസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ഗുണം കൂടിയുള്ളത് നമ്മുടെ പരിസരങ്ങളെപ്പോഴും വൃത്തിയായിട്ടിരിക്കും ഈ അവശിഷ്ടങ്ങള് അടുക്കളയിലും മറ്റും ഉപയോഗിക്കുന്ന അവശിഷ്ടങ്ങളും പിന്നെ അഴുകുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്ന ആ രീതി ഒഴിവാക്കി നമ്മള് പരിസരവും മറ്റും നന്നായിട്ട് വൃത്തിയായി കിടക്കുകയും ചെയ്യും മറ്റ് രോഗങ്ങളും കൊതുക് ഈച്ച മുതലായവയിൽ നിന്നുള്ള രോഗങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടുകയും ചെയ്യുന്നുണ്ട് ഈ കൊതുക് ഒക്കെ ഈ വേസ്റ്റുകള് വലച്ചെറിയുന്നതുകൊണ്ട് മറ്റ് രോഗങ്ങളുമൊക്കെ പരത്തുന്നു അതുകൊണ്ട് ഈച്ചകള്

പരിധി വരെ ഈ ബയോഗ്യാസ് പ്ലാൻറ്റുകൾ ജൈവ വാതക പ്ലാൻറ്റുകൾ ഗുണമാണ് പിന്നെ മാത്രമല്ല സാമ്പത്തികമായിട്ടും ആ കുടുംബത്തിന് വളരെയധികം നേട്ടമുണ്ടാക്കുന്നുണ്ട് മറ്റ് ഗ്യാസ് മറ്റ് ഗ്യാസ് വാതകങ്ങളെക്കാളും അധികം ലാഭമാണ് അതോടൊപ്പം ഈ ബയോഗ്യാസ് പ്ലാൻറ്റുകൾ ഉപയോഗിക്കുന്ന ചാണകം ചാണകം നേരിട്ട് കന്നുകാലികളില് നിന്നും ചില ചെടികൾക്കും മറ്റ് വൃക്ഷങ്ങൾക്കും ഉപയോഗിക്കുന്നതിനെക്കാളും ബാക്ടീരിയയുടെ പ്രവർത്തനം കൂടുതൽ ആ ജൈവവള പ്ലാൻറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് ചെടികൾക്കും മറ്റു വൃക്ഷങ്ങൾക്കുമൊക്കെ വളരെയധികം ഗുണമുണ്ട് അതിന്റെയകത്ത് ബാക്ടീരിയയുടെ പ്രവർത്തനം വളരെയധികം കൂടുന്നതുകൊണ്ട് നേരിട്ട് അതിനെ ഉപയോഗിച്ചാലും ചെടികൾക്കൊന്നും ഒരു ദൂഷ്യവുമില്ല എപ്പോഴും ഈ ബയോഗ്യാസ് പ്ലാൻറ്റുകൾ കൊണ്ട് പിന്നെ കർഷകനും മറ്റുള്ളവർക്കുമൊക്കെയുണ്ട് ഹോട്ടലുകാരെ സംബന്ധിച്ച് വളരെയധികം നേട്ടമാണിത് കാരണം അടുക്കളയിലും മറ്റും അവശിഷ്ടങ്ങളൊക്കെ കൊണ്ട് ബയോഗ്യാസ് പ്ലാൻറ്റുകൾക്ക് അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റലുകള് മറ്റ് ലേഡീസ് ഹോസ്റ്റല് ആശുപത്രികൾ ഇതിനൊക്കെ ഈ ബയോഗ്യാസ് പ്ലാൻറ്റ് കൊണ്ട് വളരെ നേട്ടമുണ്ട് ആ പരിസരമൊക്കെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുകയും മറ്റു അവരുടെ ആവശ്യത്തിനുമായ പാചകത്തിനുള്ള ഗ്യാസ് ലഭിക്കുകയും അതുപോലെ ലൈറ്റ് പ്രവർത്തിപ്പിക്കുകയും മോട്ടര് ഒക്കെ പ്രവർത്തിപ്പിക്കാനും സാധിക്കും അതുകൊണ്ട് അത് വളരെ പ്രയോജനമുള്ളതാണ് അതിന് സബ്സിഡി ഒക്കെ കൊടുത്ത് സർക്കാരും മറ്റ് ഏജൻസികളുമൊക്കെ ഇത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് മറ്റൊരു ഗുണമുള്ളതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ജൈവ വാതക അതായത് ബയോഗ്യാസ് പ്ലാൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വീടുകളിൽ കന്നുകാലി വളർത്തലിനും പ്രയോജനപ്പെടും പിന്നെ ഒന്ന് രണ്ട് കന്നുകാലികളെങ്കിലും ഇല്ലാതെ ബയോഗ്യാസ് പ്ലാൻറ്റുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയില്ല അതോടൊപ്പം ഈ കന്നുകാലികളെ വളർത്താനും വീട്ടിലെ മറ്റ് പാല് പാലുൽപ്പന്നങ്ങളൊക്കെ ഉല്പാദിപ്പിക്കാനും അത് വില്ക്കാനുമൊക്കെ അങ്ങനെയൊരു ഗുണം കൂടെയുണ്ട് ബയോഗ്യാസ് പ്ലാൻറ്റ്

പച്ചക്കറി അവശിഷ്ടങ്ങളില് നിന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് കന്നുകാലി വളർത്തലിനും പിന്നെ കർഷകനെയും മറ്റുള്ളവരെയൊക്കെ പോലെ പ്രോത്സാഹനമാകും അതിനുവേണ്ട സഹായസഹകരണങ്ങൾ സന്നദ്ധ സംഘടനങ്ങളും സർക്കാരുമൊക്കെ ചെയ്യേണ്ടതാണ് അത് പിന്നെ മറ്റുള്ളവരത് അതെ പറ്റിയുള്ളൊരു ബോധവൽക്കരണം നടത്തുന്നതും ക്ലാസ്സുകൾ നടത്തുന്നതും സെമിനാറുകൾ നടത്തി അവരെ അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒക്കെ ഒന്ന് പറഞ്ഞ് നല്ല ബോധവൽക്കരണം എല്ലാവർക്കും അതിനെപ്പറ്റി വലിയ ബോധമുണ്ടായിരിക്കണമെന്നില്ല എന്നാലും നല്ലൊരു ശതമാനമാൾക്കാർക്കും അതിനെപ്പറ്റി നല്ല ബോധമുണ്ട് പിന്നെയൊരു കന്നുകാലി വളർത്തലെന്ന് പറയുമ്പോള് ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ ഒന്നും വളര്ത്തല് നടക്കില്ല പ്രായമായവർക്കൊന്നും സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഈ കന്നുകാലികളെ ഒക്കെ ചെറുപ്പക്കാര് ഇതിലേക്ക് മാറാനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും കൃഷി വേണ്ട പച്ചക്കറികൾക്കും മറ്റു കൃഷികൾക്കുമൊക്കെ ഇതിൻ്റെ ചാണകം ഉപയോഗിക്കുന്നതുകൊണ്ട് വിളവ് കൂടുതലുണ്ടാകാനുമൊക്കെ സഹായിക്കും അതുകൊണ്ട് ഇത് അത്യാവശ്യമായിട്ട് സർക്കാര് പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം ഒരു മിക്ക എല്ലാ വീടുകളിലും തന്നെ ഇത് വീടുകളിലും പ്രസ്ഥാനങ്ങളിലുമൊക്കെ ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ അത്യാവശ്യമാണെന്നൊരു അഭിപ്രായം കൂടിയുണ്ട് ഇതിനുള്ള സബ്സിഡിയും മറ്റാനുകൂല്യങ്ങളുമൊക്കെ നൽകി അത് ചെയ്തു കൊടുക്കേണ്ടതാണെന്നുകൂടി ഈ അവസരത്തിൽ ബോധിപ്പിക്കുകയാണ്